അതെ ആരായിരുന്നു ആ ഓക്കെ ആ എത്ര എത്ര ദിവസമായി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി അല്ലേ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ മേല് വേദന അല്ലേ പനിയുണ്ടോ ആ ആ ആ ആണോ മഴ എന്തെങ്കിലും നനഞ്ഞിരുന്നോ മഴ നനഞ്ഞിരുന്നു അല്ലേ ചിലപ്പോൾ അതിന്റെ ആയിരിക്കണം നിങ്ങൾക്ക് അലര്ജിയും കാര്യങ്ങൾ ഒക്കെ ഉണ്ടോ ആദ്യംതൊട്ടേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ അതെങ്ങനെയാണ് എന്തെങ്കിലും പൊടി അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണോ ഈ ചിലപ്പം ബ്ലഡില് എന്തെങ്കിലും അലര്ജി കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് നിങ്ങള് ബ്ലഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം മറ്റേ ഈ പനിയൊക്കെ മാറിയിട്ട് ചിലപ്പം അലര്ജി അത് കൊണ്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ വെള്ളിയാഴ്ചകളില് അലര്ജി മാത്രമായിട്ടുള്ള അതായത് കണ്സള്ട്ടന്റ് വരുന്നുണ്ട് അപ്പം അവരെ അവരെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടങ്കില് അവർ പറയും എന്താണ് പ്രശ്നം എന്നൊക്കെ പറയും അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു നോക്കൂ പിന്നെ ഈ പനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരസെറ്റമോൾ ഒന്ന് കഴിച്ചു നോക്കുക പാരസെറ്റമോള് കഴിച്ചിരുന്നോ ആണല്ലേ ആ അപ്പോൾ പാരസെറ്റമോള് ഒരു മൂന്ന് നേരം കഴിക്കുക അതായത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം ഭക്ഷണത്തിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാന് പാടില്ല പിന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കുക വെള്ളം നല്ലവണ്ണം കുടിക്കുക അല്ലെങ്കിൽ പിന്നെ ഇനി എന്തെങ്കിലും മേല് വേദന അതായത് വയർ വേദന എന്തെങ്കിലും ഉണ്ടോ സൈഡിലായിട്ട് വയറിന്റെ സൈഡ് ആയിട്ട് വയറുവേദന എന്തെങ്കിലും ഉണ്ടോ അതുകൊ അപ്പം അങ്ങനത്തെ കുഴപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മഴ നനഞ്ഞതുകൊണ്ടുള്ള പനിയാണെന്ന് തന്നെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുദിവസം എന്തായാലും കഴിച്ചു നോക്കുക ഈ ഗുളിക രണ്ട് ദിവസം കഴിച്ചിട്ടും അതായത് നാളെ തൊട്ട് അതായത് നാളെ തൊട്ട് സ്റ്റാര്ട്ട് ചെയ്യുക നാളെ മൂന്ന് നേരം മറ്റന്നാളും കഴിച്ച് മറ്റന്നാൾ രാത്രി പിറ്റേദിവസം രാവിലെ ഒരു കുറവും കാണുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വരിക ചിലപ്പോൾ ബ്ലഡില് എന്തെങ്കിലും അലര്ജി കാര്യങ്ങൾ ഉണ്ടെങ്കില് പനി ഇങ്ങനെ വിട്ടുമാറില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ജസ്റ്റ് അതൊന്നു ശ്രദ്ധിക്കുക ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എന്റെ അടുത്തേക്ക് വന്നാൽ മതി ആ ഓക്കെ ഓക്കെ